ഹലോ ആ പറഞ്ഞോളൂ മാഡം അതെ പറയൂ ആ ഓക്കെ മാഡം ഇപ്പോൾ ഫ്രഷ് ആയിട്ട് നമുക്ക് ഈ ടീയ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും വരുന്നത് വയനാട് മേഖലകളിലേയ്ക്ക് ആണ് വയനാട് ഏരിയയിൽ ഒക്കെ ആണ് അവിടെ ഈ എന്താ പറയാ ഈ തേയിലേൻ്റെ ഒക്കെ ഇത് തന്നെ ഇണ്ട് ഷോ എന്താ പറയാ തോട്ടങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പം അവിടുന്ന് നമുക്ക് ഡയറക്റ്റ് കിട്ടുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ടീൻ്റെ പൗഡേർസ് ഒക്കെ തന്നെ ആണ് അപ്പോൾ കൂടുതലും ബെസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഇപ്പോൾ ടീ ഒക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് കിട്ടുന്നത് കൂടുതൽ വയനാട് ഏരിയയിലേക്ക് ഒക്കെ ആണ്

ആ നമുക്ക് ഇപ്പോൾ സ്റ്റേ ചെയ്യാൻ ഇവിടെ റിസോർട്ടുകൾ ഉണ്ട് ഹോട്ടൽസ് ഉണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഹൗസ് കാര്യങ്ങൾ അങ്ങനെ വേണമെങ്കിൽ അതും ചെയ്യാം ട്രഡീഷണൽ ഹൗസുകളും കാര്യങ്ങളുമൊക്കെ അവിടെ വരുന്നുണ്ട് ആ മാഡം എത്ര മെമ്പേഴ്സാ ഉണ്ടാക അഞ്ച് ആറ് പേര് ഉണ്ടാവും അല്ലേ ഓക്കെ അപ്പം നമക്ക് എത്ര ദിവസത്തേക്ക് ആണ് അവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യേണ്ടത് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഓക്കെ അപ്പം നമുക്ക് മാഡത്തിന് ക്യാബ് അങ്ങനെ എന്തേലും അറേഞ്ച് ചെയ്ത് തരേണ്ടി വരുമോ വേണ്ട നിങ്ങൾ വണ്ടിയും കൊണ്ട് തന്നെ ആണ് വരുന്നത് റേറ്റ് ഇപ്പോൾ സ്റ്റേയ്ക്ക് നമുക്ക് ലോ അപ്പോൾ നമുക്ക് ത്രീ തൗസൻഡ് തൊട്ട് ബഡ്ജറ്റില് സ്റ്റാർട്ടിംഗ് ഉണ്ട് പിന്നെ സ്റ്റാർ പ്രോപ്പർട്ടി ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം പേയ്മെൻറ്റ് കൂടുതലുള്ളത് ഒക്കെ നമുക്ക് വരുന്നണ്ട് ഓക്കെ ബഡ്ജറ്റ് നോക്കണോ അതോ വെച്ച് അത്യാവശ്യം എങ്ങനെ ആയാലും കുഴപ്പം ഇല്ലാന്ന് ആണോ ഓക്കെ അപ്പം നമുക്ക് അത്യാവശ്യം നമുക്ക് സ്റ്റാർട്ടിംഗ് ഞാൻ പറഞ്ഞില്ലേ ത്രീ തൗസൻഡ് തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് പിന്നെ മാഡത്തിന് ബഡ്ജറ്റ് ഒരു വിഷയം അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വേണമെങ്കിൽ ഈ റൂംസൊക്കെ ക്വാളിറ്റി ഉള്ള ഒക്കെ നല്ല രീതിക്കൊക്കെ ഉള്ള ഫോട്ടോ ഉണ്ട് അത് അയച്ചുതരാം എന്നിട്ട് മാഡം ഏതാ വേണ്ടേന്ന് വെച്ചാൽ ചൂസ് ചെയ്തിട്ട് നമുക്ക് അയച്ച് പറഞ്ഞുതരണെങ്കിൽ നമുക്ക് അതിന് അനുസരിച്ച് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചേക്കാം എന്നത്തേക്ക് ആണ് മാഡം എത്തുന്നത് മ് ഓക്കെ നെക്സ്റ്റ് വീക്കിലേക്ക് ആണ് അല്ലേ ഓക്കെ അപ്പം നമുക്ക് വേണ്ട പോലെ ചെയ്ത് തരാൻ പറ്റും ടീ ഇപ്പോൾ കൂടുതൽ ഞാൻ പറഞ്ഞ പോലെ വയനാട് ആ അങ്ങോട്ട് ഉള്ള ഇതിലേക്ക് ഒക്കെ ആണ് വയനാട്ടിൽ ഇപ്പോൾ ചേകാടീന്ന് ഒക്കെ പറയുന്ന സ്പോട്ടില് ചായക്കടകളൊക്കെ ഈ എന്താ പറയാ പഴയ പണ്ട് കാലത്തെ ടീ ഷോപ്പുകളൊക്കെ പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ചായയും കാര്യങ്ങളൊക്കെ അവിടുന്നും കിട്ടും അപ്പോൾ നമുക്ക് വേണ്ട പോലെ അത് ചെയ്തു തരാൻ പറ്റും ആ ഓക്കെ മാഡം നമക്ക് എന്തായാലും ചെക്ക് ചെയ്തിട്ട് മാഡത്തിനോട് പറഞ്ഞുതരാം